എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്രൗണാണ് ആ ബ്രൗൺ വച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതിൽ എല്ലാം ഞാൻ അയക്കും പിന്നെ അതിന് യോജിച്ച അതിനായിട്ട് ചേരുന്ന കളറുകൾ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ്ങ് ആണ് ചെയ്യുന്നത് വിപുലമായ സ്റ്റിച്ചിങ്ങ് ഒന്നുമില്ല വീട്ടാവശ്യത്തിനുള്ള സ്റ്റിച്ചിങ്ങ് ചെറിയ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങ് ആണ് ഞാൻ ചെയ്യുന്നത് ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാവാട കുട്ടികളുടെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ അതിന് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ആണല്ലോ ഏറ്റവും നല്ലത് അതനുസരിച്ചുള്ള കളര് എന്റെ കണ്ണിന് അനുയോജ്യമായത് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും പിന്നെ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും വാസന അനുസരിച്ചാണല്ലോ അത് വരുന്നത് നമ്മുടെ എന്റെ കഴിവാണ് ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് വലിയ കഴിവില്ല എന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് ഞാന് സ്റ്റിച്ച് ചെയ്യുന്നു ആ സ്റ്റിച്ചിന് വേണ്ടി ഞാൻ അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കളറും ഡാര്ക്ക് കളറാണ് ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡാര്ക്ക് കളറാണ് ആ രീതിയിലുള്ളതാണ് കൂടുതലും എനിക്ക് ബ്ലൗസാണ് തയ്ക്കുന്നത് അപ്പോൾ ബ്ലൗസിന് ഏത് കളറായാലും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ട കളറുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട് പിന്നെ കുട്ടികൾ പറയുമ്പോൾ അവരുടെ ചെറിയ ചെറിയ ഫ്രാക്കുകൾ പെറ്റിക്കോട്ട് അങ്ങനെയുള്ള സാധനങ്ങളാവുമ്പോൾ അതിന് വലിയ കളറും വേണ്ട അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ മുമ്പോട്ട് പോവും പിന്നെ വലിയ സ്റ്റിച്ചിങ്ങെന്ന് പറയാനില്ല നമ്മുടെ വീട്ടാവശ്യത്തിനും ഞങ്ങളുടെ കുട്ടികൾക്കുമുള്ള ചെറിയ തയ്യലുകളാണ് ഞാൻ എടുക്കുന്നത്